ഇപ്പോൾ ഉള്ള കാലാവസ്ഥ എന്നാൽ നല്ല മഴയാണ് എങ്കിൽപ്പോലും ഭക്ഷണം ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അവരു ഫാസ്റ്റായിട്ട് ഡെലിവെറി ചെയ്യുന്നുണ്ട് അതുപോലെത്തന്നെ എന്താ പറയുക ഫുഡ് അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല ഡെലിവെറി ബോയ്സ് വേഗം ഡെലിവെറി എത്തിച്ചുതരുന്നുണ്ട് പിന്നെ മഴയായിട്ട് തണുപ്പുള്ള അങ്ങനെയുള്ള ഭക്ഷണമല്ല ചൂടുള്ള ഭക്ഷണമാണ് അതുപോലെത്തന്നെ നല്ല കണ്ടെയ്നറിലൊക്കെ വച്ച് സെയ്ഫായിട്ടാണവർ കൊണ്ടുവരുന്നത് അതുപോലെത്തന്നെ ഓർഡർ ചെയ്ത് ഒരു ഇപ്പം പത്ത് മിനുറ്റിനുള്ളിൽ വരാം എന്നു പറഞ്ഞാൽ അവർ പത്ത് മിനുട്ടിനുള്ളിൽ തന്നെ വരും എന്താ പറയുക അങ്ങനെയാണ് പിന്നെ എന്താ പറയുക റെസ്റ്റോറന്റ് ഉടമകളുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അവരു നല്ലൊരു സേവനമാണ് തരുന്നത് ഭക്ഷണത്തിന് ടേസ്റ്റൊക്കെ നല്ലതു തന്നെയാണ് ഗുണനിലവാരത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അത് ഏത് കാലാവസ്ഥയിലും നോർമലിലായാലും ഈ വേനൽക്കാലത്തും മഴക്കാലത്തും അങ്ങനെ ഇതിനൊരു കാലാവസ്ഥ രീതിയിൽ അങ്ങനെ പ്രവർത്തനം പറയാൻ കഴിയുന്നില്ല എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ തന്നെ ആണ് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പം നമുക്ക് ഡെലിവെറി ആയിട്ട് കിട്ടാറുള്ളത് അതുപോലെത്തന്നെ എന്താ പറയുക അവർ ഡിസ്ക്കൌണ്ടായിട്ട് കുറച്ച് മണിയൊക്കെ തരുന്നുണ്ട് അതുപോലെത്തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡാണ് നമുക്കെത്തിച്ച് തരുന്നത്